ഹലോ പദ്മജ മാഡമല്ലേ ആ ഹലോ മാം ഞാനിവിടെ എൻ്റെ പേര് ഗംഗയെന്നാണേ ആ മാം ഞാനാണെങ്കിൽ കുറച്ച് പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനായിട്ട് വിളിച്ചതാണ് മാമിനോട് നമ്മുടെ ഇപ്പം ഈ സമൂഹത്തിൽ നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങളെക്കുറിച്ച് മാമിനെ ഒന്ന് അറിയിക്കാനായിട്ട് വിളിച്ചതാണ് ആ മാം ഇപ്പോൾ ഈയിടെയൊക്കെയാണല്ലൊന്നൊര് ഈ കൊ ഇപ്പം ഇപ്പം നമ്മുടെ സമൂഹത്തിൽ കൊച്ചു പെൺകുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളേക്കുറിച്ച് ഒരു മാതാപിതാ മാതാവെന്ന നിലയിൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ് മാം ഈയിടെത്തന്നെ കണ്ടില്ലേ പത്രത്തിലൊക്കെ ഒരു കൊച്ചിനെ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഒരു കൊച്ചിനെ ആറ് വയസ്സുള്ള ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയത് അതുപോലെതന്നെ ആലുവയിൽ കണ്ടില്ലേ ഒരു കുഞ്ഞിനെ പീഡിപ്പിച്ചത് പെൺകുട്ടികളുടെ സുരക്ഷയോർത്ത് നല്ല ടെൻഷനുണ്ട് മാഡം മാഡം അതുപോലെതന്നെ ഇതിൻ്റെ ഇതിനൊക്കെ പ്രതിവിധിയായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സഹായം ഒക്കെ ഞങ്ങൾക്ക് കിട്ടുമെന്ന് കിട്ടുവോ പേരൻറ്റ്സിന് എന്തെങ്കിലും കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ഗൈഡൻസോ അത് ആ ആ അതെ മാഡം പേരൻറ്റ്സിന് സ പേരൻറ്റ്സിൻ്റെ ഒരു ശ്രദ്ധ വേണം എന്നിരുന്നാലും ഞങ്ങൾക്കൊരു സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുമൊരു സഹായം കിട്ടിയിരുന്നെങ്കിൽ ഒരു കുട്ടികൾക്കാണെങ്കിലും അതിൻ്റെ സ്കൂളുകളിലൊക്കെ അതിൻ്റെ ഒരു മാർഗനിർദ്ദേശം നിങ്ങൾ നൽകിയിരുന്നെങ്കിൽ അത് അവർ കുറച്ചുകൂടെയൊന്ന് മനസ്സിലാവുക ഒക്കെ ചെയ്തേനെ

ഓക്കെ മാം അങ്ങനെയൊക്കെ ചെയ്ത് തരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് വലിയ സഹായമായിരിക്കും ആ ഇത് മാമിനെയൊന്ന് അറിയിക്കാനായിട്ടാണ് ഞാൻ വിളിച്ചത് എങ്കിൽ പിന്നെ ശരിയെന്നാൽ മാം വേറൊന്നും ഇല്ലല്ലോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ആസൂത്രണം ചെയ്തിട്ട് പൊതു ജനങ്ങളിലേക്കെത്തിക്ക് ആ ഓക്കെ മാം അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളുമൊക്കെ വഴിയേ അറിയിച്ചാൽ മതി കേട്ടോ ഓ ആ ഓക്കെ ആ ഓക്കെ എന്നാൽ മാം താങ്ക്യു എന്നാൽ ശരിയെന്നാൽ ഓക്കെ താങ്ക്യു ആ